കേരളത്തിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ധാരാളം ഉത്സവങ്ങളുണ്ട് അത് സാംസ്ക്കാരിക മേൻമ വിളിച്ചറിയിക്കുന്നതാണ് കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളെല്ലാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ ജില്ലയിൽ നടത്തപ്പെടുന്ന തെയ്യമാണ് ഉത്തരകേരളത്തിൽ പ്രചാരമുള്ള ഒരാരാധന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് അനുഷ്ഠാന കലയായ തെയ്യം പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട് കളിയാട്ടങ്ങളിൽ പഴയങ്ങാടി മുതൽ വളപട്ടണം വരെ തെയ്യം എന്നും അറിയപ്പെടുന്ന ഒരുത്സവമാണിത് ചില സ്ഥലങ്ങളിൽ അത് തിറ എന്ന പേരിൽ അവതരിപ്പിക്കുന്നു നൃത്തം ചെയ്യുന്ന ദൈവ സങ്കൽപ്പമാണ് തെയ്യം ദൈവമാണ് തെയ്യമായി മാറിയത് ആ വേഷം കെട്ടിയ ആൾക്കാര് ദൈവത്തിൻ്റെ വേഷം കെട്ടിയ ആൾക്കാര് പറയുന്നതെന്നും എല്ലാം സത്യസന്ധമായിട്ട് കേട്ട്നിൽക്കുന്ന ഭക്തജങ്ങളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അടുത്തത് പ്രധാനപ്പെട്ടൊരു ഉത്സവമെന്നു പറയാനുള്ളത് കൽപ്പാത്തി രഥോത്സവമാണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവമാണിത് ശ്രീ വിശാലാക്ഷി സമ്മേദ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടത്തുന്നത് പത്തു ദിവസത്തെ ഉത്സവമാണിത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദേവരഥം തെരുവിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കാനായി എത്തിച്ചേരുന്നു അവസാനം മൂന്ന് ദിവസം നടത്തുന്ന പ്രൗഡഗംഭീരമായ ഒരു ചടങ്ങാണ് രഥം വലിക്കൽ ചടങ്ങ് കേരള കേരളീയരെ മാത്രമല്ല ഇത് ഈ രഥ ഉത്സവം വിദേശിയരെ വരെ ആകർഷിച്ചിട്ടുള്ളതാണ് പിന്നെ പ്രധാനമെന്ന് പറയാനുള്ളത് കൊട്ടിയൂരത്തെ ഉത്സവമാണ് ഇരുപത്തെട്ട് ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവമാണ് കൊട്ടിയൂരുത്സവം കേരളത്തിലെ വലിയ കാടിൻ്റെ മദ്ധ്യഭാഗത്തായിട്ട് ഇരമ്പുന്ന നദിക്ക് മുന്നിലുമായിട്ടാണ് ഈ ഉത്സവം നടത്തുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പേരുകേട്ട കേരളത്തില് ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമാണ് കൊട്ടിയൂരത്തെ ഉത്സവം അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നീ രണ്ട് ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ ഒരുമിച്ചാണ് നടത്തുന്നത് കണ്ണൂർ കണ്ണൂ കണ്ണൂരിലെ മലനിരകളിൽ വെച്ചാണ് ഈ ഉത്സവമെല്ലാം അരങ്ങേറുന്നത് വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട് ഉത്സവങ്ങളിൽ ഒന്നാണിത് എല്ലാ വർഷവും ഉത്സവദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ് വേദി പിന്നെ പറയുകയാണെങ്കിൽ ഉത്സവങ്ങളുടെ ഉത്സവമായ തൃശ്ശൂർ പൂരവും കേരളീയർക്ക് ഭാരതീയർക്ക് വിദേശികൾക്ക് മറക്കാൻ പറ്റാത്തൊരുത്സവം തന്നെയാണ്